ഇന്ത്യയുടെ ഫാഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിലേക്കാൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്നത്തെ കാലത്ത് വന്നിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽത്തന്നെ ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അമ്മമാരൊക്കെ ആയിക്കോട്ടെ സാരിയും കുട്ടികളൊക്കെ പട്ടുപാവാട അല്ലെങ്കിൽ പാവാട അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെയാണ് കൂടുതലും ധരിച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു ഇരുപതാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൾച്ചറ് തന്നെ മാറിയിരിക്കുന്നു അതായത് ഇന്ന് അമ്മമാരെന്നില്ല കുട്ടികളെന്നില്ല എല്ലാവരും മോഡേൺ വസ്ത്രത്തെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് അവർ ഇഷ്ടപ്പെടാറുള്ളത് ഒരുപക്ഷേ അവർക്ക് അതായിരിക്കാം കംഫർട്ട് കൂടുതൽ അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എൻ്റെയൊരു കാഴ്ചപ്പാടിൽ ആൾക്കാർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഏതു വസ്ത്രമാണോ അത് ധരിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു അല്ലേൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആണേലും നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു വസ്ത്രം ധരിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നല്ലൊരു കംഫർട്ട് സോൺ തരില്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ധരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീൻസും അതുപോലെതന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ടീഷർട്ടും അങ്ങനെ എൻ്റെ ഒരു ശരീരഘടനയെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അത് അങ്ങനെവച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അങ്ങനെ ഒന്നും നോക്കാതെ അല്ലേൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുപോലും കരുതാതെ അവർ ഫാഷന് പിന്നാലെ പോകുന്നവരുണ്ട് എന്ത് തന്നെയാണേലും ഫാഷൻ്റെ പേരിൽ എന്ത് വൃത്തികേട് കാണിക്കാൻ വരെ തയ്യാറാകുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഫാഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്തെ വച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്ത്രരീതി പറ്റി മോശം പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശം പറയാനുണ്ട് പലരും ഒരു പബ്ലിക് പ്ലേസിലൊക്കെ ധരിച്ചിട്ട് വരാൻ പാടില്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അത് മൂലം കുറെ പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി വിലയിരുത്താനും പറ്റില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ പേഴ്സണലായിട്ടുള്ള മാറ്റർ ആണ് അതൊക്കെ അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി